ഞാൻ പൂന്തോട്ടം പരിപാലിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി പൂന്തോട്ടം ഒരുക്കുന്നത് എൻ്റെ ഒരു താത്പര്യമാണ് പൂന്തോട്ടം പരിപാലനം എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഹോബി കൂടിയാണ് എൻ്റെ വീട്ടിൽ ധാരാളം വിവിധ തരത്തിലുള്ള ചെമ്പരത്തികൾ അതുപോലെ തന്നെ വിവിധതരത്തിലുള്ള റോസ് ചെടികൾ എട്ടുമണിപ്പൂക്കൾ ചൈനീസ് ബോൽസം വിവിധതരത്തിലുള്ള വിവിധതരത്തിലുള്ള കുറേ കളർ ചെടികൾ എന്നിവയെല്ലാം ഉണ്ട് അതിനെല്ലാം ഞാൻ നല്ല രീതിയിൽ വളം കൊടുക്കുകയും സമയാസമയങ്ങളിൽ വെള്ളം കൊടുക്കുകയും അതിൻ്റെ പൂക്കൾ കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ ചെറിയ കമ്പും മാറ്റി വെട്ടിക്കളയുകയും എങ്കിൽ മാത്രമേ പുതിയ അവ ഒന്ന് വരുകയും വീണ്ടും പൂക്കളുണ്ടാകുകയുമെല്ലാം ചെയ്യുന്നുള്ളു ചെയ്യുകയുള്ളു അതുകൊണ്ട് പുതിയ പൂക്കളും എല്ലാം സമയത്തും ധാരാളം പൂക്കൾ എൻ്റെ പൂന്തോട്ടത്തിൽ ഉണ്ടാകാറുണ്ട് അത് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് വിവിധ തരത്തിലുള്ള പൂക്കളെ കാണുമ്പോൾ ധാരാളം പൂമ്പാറ്റകൾ പറന്ന് കളിക്കുന്നതും അതെല്ലാം ഒരു രസമാണ് പ്രകൃതിയെ അത്രയധികം ഞാൻ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ പൂക്കളോടും ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഇഷ്ടപ്രകാരം പൂ പുതിയ പുതിയ ചെടികളെല്ലാം വെക്കുന്നതിനും എല്ലാറ്റിനും ഞാൻ സമയം കണ്ടെത്താറുണ്ട്